ബൈക്കോടിച്ചു തുടങ്ങുന്നവരിൽ ഏറ്റവും സാധാരണമായി സംഭവിക്കാറുള്ള തെറ്റുകളിലൊന്നാണ് ഹെൽമറ്റ് ഉപയോഗിക്കാതിരിക്കൽ ഏറ്റവും പ്രഥമവും അപകടകരവുമായ കാര്യം ഇതാണ് രണ്ടാമത്തേത് ബാലൻസ് നഷ്ടപ്പെടലാണ് പ്രത്യേകിച്ച് ലോ സ്പീഡ് ഓടിക്കുമ്പോൾ അതു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പിന്നെ ക്ലച്ച് ബ്രേക്ക് കൺട്രോൾ നഷ്ടപ്പെടലാണ് അതായത് അപ്രതീക്ഷിത എഞ്ചിൻ ഓഫ് അല്ലെങ്കിൽ സ്ലിപ്പൊക്കെ ഉണ്ടാവുന്നതു ശ്രദ്ധിക്കേണ്ടതായിട്ടു വരുന്നു പിന്നീട് നമ്മള് ശ്രദ്ധിക്കേണ്ട കാര്യം ൽകി തിരിയാതിരിക്കലാണ് നമ്മൾ ഓരോ സിഗ്നൽ എത്തുമ്പോഴും മറികടക്കുമ്പോഴും വഴി മാറുമ്പോഴും കറക്റ്റായി സിഗ്നൽ നൽകേണ്ടതാണ് പിന്നീട് ശ്രദ്ധിക്കേണ്ട കാര്യം ഓവർ സ്പീഡാണ് അതുപോലെ തന്നെ ആവശ്യമില്ലാത്ത സമയത്ത് ഹോണടിക്കുക അടിക്കുക അതു മറ്റുള്ളവർക്കു ശല്യമുണ്ടാക്കി അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നു അതുപോലെ ട്രാഫിക് നിബന്ധനകൾ അറിയാതെയുള്ള വാഹനമോടിക്കലും ശ്രദ്ധിക്കേണ്ടതാണ് ട്രാഫിക് ലൈറ്റുകൾ ലൈൻ ക്രോസിങ്ങുകൾ പെഡസ്ട്രിയൻ ക്രോസുകൾ ഇവ ഇഗ്നോർ ചെയ്യല്ല് ചെയ്യരുത് കർശനമായി പാലിക്കേണ്ട നിയമങ്ങൾ ഹെൽമെറ്റ് ധരിക്കണം അതുപോലെ ലൈസൻസില്ലാതെ ബൈക്ക് ഓടിക്കരുത് ട്രാഫിക് ലൈറ്റുകളും അടയാളങ്ങളും പാലിക്കുക വേഗപരിധി കൃത്യമായി പാലിക്കുക ഒരേ സമയം രണ്ടു പേരേക്കാൾ കൂടുതൽ ആളുകളെ യാത്ര ചെയ്യാൻ യാത്ര ചെയ്യിക്കാൻ പാടില്ല മദ്യപാനത്തിനു ശേഷം ബൈക്ക് ഓടിക്കരുത് ബൈക്കിൻ്റെ ഇൻഷുറൻസ് പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് രജിസ്ട്രേഷൻ എന്നിവ അപ് റ്റു ഡേറ്റായിരിക്കണം